സാർ ഞാൻ ഇവിടെ നിന്നെടുത്ത വാഹനമായിരുന്നു ഇത് അപ്പോൾ ഈ വാഹനം ഞങ്ങൾ വിചാരിച്ചു നല്ല വാഹനം ഒള്ളോകായത നല്ല ഇതുള്ളതാണല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങളെ അടുത്ത് അത് പക്ഷെ ഈ ഞങ്ങൾ ഉദ്ദേശിച്ച അത്ര സ്പീഡ് കിട്ടുന്നില്ല ഈ വാഹനത്തിനു മൈലേജ് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ എന്താണോ ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ് ഈ വണ്ടിയിൽ കയറി പോകുമ്പോഴേക്ക് അപ്പോൾ ഇടയ്ക്ക് ഒക്കെയാണ് കാറാണെങ്കിൽ റോഡിൽ കിടന്ന് പഞ്ചറായി പോവുകയാണ് ഞങ്ങൾ പല പ്രാവശ്യവും ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ടയറാണെങ്കിൽ തന്നെ ആണെങ്കിലും എന്തോ ഒരു വല്ലായിക കണക്കാണ് ഞങ്ങൾക്ക് ഈ വണ്ടിയെ കുറിച്ച് തോന്നുന്നത് ചിലപ്പോഴാണെ ഫോൺ ഹോണാണെങ്കിൽ പ്രവർത്തിക്കത്തില്ല ഇപ്പോൾ എത്ര പ്രാവശ്യം ഇത് നന്നാക്കിയെന്ന് അറിയാമോ കാരണം പിന്നെ സീറ്റുകളാണെങ്കിൽ പോലും ഇതിനു വലിയ പിന്നെ ഗ്യാരൻ്റി ഒന്നും ഇലാത്ത കണക്കാണ് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം തന്നെ സ്പോഞ്ചൊക്കെ ആണെങ്കിലും അങ്ങനെ പോയ ഒരു സ്പോഞ്ച് കണക്കാണ് നമുക്ക് തോന്നുന്നത് ഇരിക്കുമ്പം താഴ്ന്നു പോകുന്നു പിന്നെ ഇതിനകത്തെ എ സി അല്ലെങ്കിൽ ഇതിനകത്തെ അതൊക്കെ ഒരു ഒരു വേറെ ഒരു മണവും കാര്യങ്ങളുമൊക്കെയാണ് എന്തെന്നു പറഞ്ഞാൽ ഈ വണ്ടി ശരിയായ വണ്ടി അല്ല കാരണം ഇത് നല്ല വണ്ടി ആണല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചാണ് ഞങ്ങൾ എടുത്തത് പക്ഷെ ഇത് ഒരു മോശം വണ്ടി കണക്കാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് മൈലേജൊന്നും കിട്ടാതെ നമ്മൾക്ക് ഇങ്ങനെ ബാക്ക് ഇടിക്കുന്ന കണക്കൊക്കെ തോന്നുകയാണ് ഈ വണ്ടിയിൽ പോവുമ്പോഴേക്ക്